ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നല്ല ഒരു യാത്രാനുഭവം പങ്കു വയ്ക്കാമോ എന്നെ സംബന്ധിച്ചെടുത്താൽ ഞാൻ പ്ലസ്ടുവിലാണ് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നത് അത് വരെ ഞാൻ ടൂറൊന്നും പോയിട്ടില്ല എനിക്ക് ഇങ്ങനെ താൽപ്പര്യം ഒന്നുമില്ലത്ത ഒരു വ്യക്തിയാണ് ഇങ്ങനെ ക്ലാസിൽ നിന്നല്ല സ്കൂളിൽ നിന്നൊക്കെ ടൂറ് പോകാൻ താൽപ്പര്യമൊന്നുമില്ല അപ്പം പ്ലസ്ടുവിലെ പിള്ളേരെല്ലാം പറഞ്ഞു എടീ നമ്മുടെ അവസാനത്തെ ഇതല്ലേ അല്ല പ്ലസ് ടു അല്ല ആ പ്ലസ്ടുലെ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുകയല്ലേ അപ്പം നീ വരണം പേരൻസിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എനിക്ക് വലിയ താൽപ്പര്യം ഒന്നുമില്ലായിരുന്നു ഓ ടൂർ അല്ലേ രണ്ട് ദിവസം കഴിയുമ്പം തിരിച്ച് വരുമ്പം ഒരു ഇതൊന്നും കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ സാറമ്മാർ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു അപ്പം പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടൂറ് പോയത് കൊടൈക്കനാലിലായിരുന്നു ടൂറ് തുടങ്ങി അപ്പം ഞങ്ങൾക്ക് രാവിലെ വെളുപ്പിനെ ഒരു രണ്ടര ആയപ്പോഴത്തേക്കും സ്കൂളിൽ വരണമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ വന്നു പിള്ളേരെയൊക്കെ കണ്ടു അപ്പം ആ കുഴപ്പമില്ലല്ലോ നല്ലതാണ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സ്കൂകൂളിൽ നിന്ന് ഒരു ടൂർ എന്നൊക്കെ എനിക്കങ്ങനെ ഒന്നും താൽപ്പര്യമില്ലാതിരുന്ന ഒരാളാണ് അപ്പം ഒക്കെ എല്ലാവരും രണ്ട് വണ്ടീലായിട്ടാണ് പോയത് സയൻസുകാർ ഒരു ബാച്ചിൽ കൊമേഴ്സുകാർ ഒരു ബാച്ചിൽ അപ്പം സയൻസ് ഞങ്ങൾ ഒരു ബാച്ചിലായിരുന്നു അങ്ങനെ രാവിലെ അവിടെ ആ ബസിൽ കയറിയപ്പം തൊട്ട് ഒരു ഇരുട്ട് മൂടി കിടക്കുകയാണല്ലോ രാത്രി വെളുപ്പാം കാലമാണല്ലോ അപ്പം ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയപ്പഴേ പിള്ളേർ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി അപ്പം തൊട്ട് ഒരു വൈബ് ഇങ്ങനെ വന്നു തുടങ്ങി പിന്നെ രാവിലെയായി എല്ലാവരും ക്ഷീണിച്ചു കുറേ പേരൊക്കെ ഇരുന്നുറങ്ങി പിന്നെ കൊടൈക്കനാലിൽ വൈകുന്നേരമൊക്കെ ആയപ്പം എത്തി നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ സ്വെറ്ററൊക്കെ എടുത്തിട്ടില്ലേ പിള്ളേർ എല്ലാവരുമുറങ്ങി അവിടെ സൈക്ലിങ്ങ് ബോട്ടിങ്ങ് അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറേ പിള്ളേർ ഒരു സൈഡിൽ കുടെ പോയി ടീച്ചേഴ്സുമായിട്ട് വേറൊരു പിള്ളേർ വേറൊരു സൈഡിൽ കൂടെയും പോയി രണ്ട് പേരും മീറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്താണ് അത് അവിടെ ഇങ്ങനെ പോണ്ട് ചുറ്റി ഇങ്ങനെ വരണം അതൊരു ഒന്നന്നര മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ തണുപ്പായത് കാരണം എങ്ങനെ എങ്കിലും ആ പോണ്ടോന്ന് ചുറ്റി തിരിച്ച് വന്നാൽ മതി എന്നായി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അവിടെ സൈക്ലിങ്ങ് ഉണ്ടായിരുന്നു സൈക്കിളൊക്കെ ചവിട്ടി പകുതി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തണുത്തിട്ട് പറ്റുന്നില്ല ചവിട്ടാൻ പിന്നെ അവിടെ നിന്ന് ഗ്ലൗസൊക്കെ വാങ്ങി കൈയിലിട്ടു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നു പിള്ളേരൊക്കെ ആയിട്ട് പിന്നെ രാത്രി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഡിജെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പം പിള്ളേരൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ട് നിൻ്റെ ഫസ്റ്റ് ടൂറായിട്ട് എങ്ങനെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നല്ല രസമുണ്ട് അപ്പോഴാണല്ലോ നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നമുക്ക് ഒരു അവിടെ ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അഞ്ച് പേര് ഒരു ഒരു റൂമിൽ അങ്ങനെ സാറ് രാവിലെ സാറ് പറഞ്ഞു രാവിലെ ഏഴര ആകുമ്പോഴെല്ലാവരും ഒരുങ്ങി നിൽക്കണം നമുക്ക് എന്നിട്ട് അടുത്ത സ്ഥലം കാണാനെക്ക പോവണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ രാത്രി കുറേയൊക്കെ കളിച്ചു ചിരിച്ചു നടന്നു എന്നിട്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ കയറി കിടന്നുറങ്ങി രാവിലെ പിന്നെ മിസ്സുമാർ വന്ന് കതകിൽ കൊട്ടിയപ്പോഴാണ് നമ്മൾ എണീറ്റത് പിന്നെ എണീറ്റ് ഫ്രഷായി താഴെ ചെന്നു പിന്നേം വണ്ടിയിൽ കയറി പിന്നെ ഗുണാ കേവൊക്ക പോയി കണ്ടു അപ്പം ഈ സിനിമയുടെ മഞ്ഞുമ്മൽ ബോയ്സൊന്നും ഈയിടെ മഞ്ഞുമ്മൽ ബോയ്സ്ക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ആ ഗുണ കേവിൽ നമ്മൾ ആ പിള്ളേരെക്കൊ ആയിട്ട് പോയതൊക്കെ ഓർത്തു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കൂടെ എല്ലാം കറങ്ങി പിന്നെ പൈൻ ഫോറസ്റ്റ് കുറേ സൂയിസൈഡ് പോയിൻസക്കെ കണ്ടു നല്ല രസമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസമുണ്ടായിരുന്നു ട്രിപ്പ് അത് കഴിഞ്ഞു വീട്ടിൽ വന്നപ്പോഴാണ് ആഹാ കൊള്ളാമല്ലോ നേരത്തെ പോവണ്ടെയായിരുന്നു പിന്നെ പേരൻസൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നല്ല നല്ല പോയിൻ്റ് വ്യൂ പോയിൻസൊക്കെ ഉണ്ട് അവിടെ കാണാമെന്നൊക്കെ പറഞ്ഞപ്പം അവരും പറഞ്ഞു നമുക്ക് എന്നാൽ വീട്ടിൽ നിന്നൊരു ദിവസം ടൂറ് പോകാമെന്നൊക്കെ പറഞ്ഞു നല്ല രസാരുന്നു അതൊക്കെ കാണാൻ